നമ്മുടെ ഈ ലോകത്ത് വെളിച്ചത്തും രാത്രിയൊക്കെ ഉണ്ടാവണത് സൂര്യൻ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് പകലാണെങ്കിൽ നല്ല വെളിച്ചവും ചൂടും നമ്മുടെ ജീവൻ തന്നെ നിലനിൽക്കുന്നത് സൂര്യൻ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ രാവിലെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വെളിച്ചവും അതേപോലെ ആവശ്യത്തിന് ചൂടും ഒക്കെ തന്ന് നമ്മുടെ മനുഷ്യജീവനും അതേപോലെ മൃഗങ്ങളാണെങ്കിലും പക്ഷി ജന്തു ജീവജാലങ്ങളാണെങ്കിലും ഈ ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെയും ആവാസ വ്യവസ്ഥ സൂര്യനുള്ളത് കൊണ്ടുമാത്രമാണ് മുന്നോട്ടുപോകുന്നത് അതുകൊണ്ടുതന്നെ സൂര്യൻ്റെ വള പങ്ക് വളരെ വലുതാണ്